പഴയ ഗാനമെന്നു പറഞ്ഞാൽ ഈ സിനിമായ്ക്ക് അതിൻറ്റേതായ രീതിയിലൂടെ അതിൻ്റെ അർത്ഥവും ഇതുമെല്ലാം സാഹചര്യത്തോടനുബന്ധിച്ചുള്ള അതിനോടനുസരിച്ചുള്ളൊരു പാട്ടായിരുന്നു പഴയ ഗാനങ്ങൾ ഇപ്പോഴത്തേതെന്നു പറഞ്ഞാൽ അ രണ്ടു മൂന്നോ വാക്കുകളൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെയെല്ലാമടിച്ചു പൊളിച്ചുള്ള പാട്ടാണ് അടിപൊളി പാട്ടുകളാണിപ്പോഴത്തെ പാട്ടുകൾ ഞാൻ രണ്ടു പാട്ടും കേൾക്കാറുണ്ട് അടിപൊളിപ്പാട്ട് കൂടുതലുമെനിക്കിഷ്ടം അടിപൊളിപ്പാട്ട് അടിച്ചു പൊളി ഉള്ള പാട്ടാണ് അതാകുമ്പം നമുക്കൊരു ഡാൻസുമൊക്കെക്കളിച്ചു തുള്ളിച്ചാടി അതിന്റെ കൂടെക്കൂടാം മറ്റേതാണെങ്കിൽ നമ്മളിങ്ങനെ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാകുമ്പം അതിൻറ്റേതായ അനുസരിച്ചുള്ള രീതിയിൽക്കൂടി മാത്രമാണ് അതു പാടാനൊക്കുന്നത് ഇതു നല്ല രീതിയിൽക്കൂറ്റി പാടാനായിട്ടു നമുക്ക് സാധിക്കും അടിച്ചു പൊളി പാട്ടാകുമ്പം നമുക്കേത് വാക്ക് വേണേലു എവടെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് നമ്മളങ്ങനെ ആ ഒരു രീതിയിൽക്കൂടി ആ പാട്ടിനെ ഇഷ്ടപ്പെടുന്നു പഴയ ഗാനങ്ങൾ ഒ ഒത്തിരി നല്ലതാണ് പഴയ ഗാനങ്ങൾ പഴയ ഗാനങ്ങൾക്ക് നമുക്ക് ഒത്തിരി അർത്ഥമൊക്കെ ഉള്ളതു കൊണ്ട് നമ്മളാ പാട്ടിനേ പഴയ ഗാനങ്ങളെയും നമ്മളിഷ്ടപ്പെടുന്നുണ്ട് എന്നാലും കേൾക്കാൻ എറ്റവും രസമായിട്ടുള്ളത് പുതിയ ഗാനങ്ങളാണ് പഴയ ഗാനങ്ങളിനേക്കാട്ടിലും കൂടുതൽ കേൾക്കാൻ ഇമ്പമേറിയ ഗാ ഗാനങ്ങളൊരു സൗണ്ടും ഒക്കെ ആകുമ്പം അതിനൊരു പ്രത്യേക രസമാണത് കേൾക്കുന്നതിന് പിന്നെ അതു പോലെ തന്നെ എല്ലാവർക്കും ചെറുപ്പകാർക്കായാലും പ്രായമുള്ളവർക്കായാൽ കായലും ആർക്കാണെങ്കിലുമിഷ്ടം ഈ അടിച്ചു പൊളി പാട്ടാണ് നമ്മളൊരു പരിപാടി വെച്ചു കഴിഞ്ഞാൽ ആ പരിപാടിയ്ക്കകത്ത് ഒരു പാട്ടിടും അതേത്തുടർന്ന് പി പിന്നെയും പിന്നെയും അന്ത്യാക്ഷരി കളിച്ചു കൊണ്ട് നമ്മളിങ്ങനെ പാടിപ്പാടിപ്പാടിപ്പോകും ആ പാട്ടുകളൊക്കെ നമുക്കിങ്ങനെ പാട്ടുകളറിയാമെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് പിന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ പാടാനായിട്ടു സാധിക്കത്തുള്ളു പിന്നെ ഏത് ഒരു പാട്ടിൻ്റെയും ഒരു മൂല കേട്ടാൽ നമുക്ക് പിന്നെ അവരുടെ കൂടങ്ങ് നമ്മളങ്ങ് പാടിപ്പോകും തന്നെ പാടാനായിട്ടു നമുക്കറിയത്തില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആകുമ്പോൾ അതു പാടുമത് ഈ അടിച്ചു പൊളി പാട്ടാകുമ്പം നമുക്കത് അതിൻറ്റോടൊപ്പം തന്നെ തുള്ളാനും ചാടാനും ഒരൂ നാ ന്ന സെ വൈ രാത്രീ ഓരോ പരിപാടികൾ വെയ്ക്കുമ്പം അതായത് കല്ല്യാണത്തിൻ്റെ ഒക്കെ റിസപ്ഷൻ പരിപാടിയൊക്കെ വെയ്ക്കുമ്പോഴത്തേക്കിന് ഈ അടിച്ചു പൊളി പാട്ടിട്ട് കഴിയുമ്പം പ്രായപദ ഭേദമെന്യേ എല്ലാവരും അതിനോടൊപ്പം തുള്ളിച്ചാടി മറിഞ്ഞ് അത് എല്ലാവരും പങ്കാളികളാകുകയും എല്ലാവർക്കും സന്തോഷവും സ ആനന്ദവും പകരുകയും ചെയ്യും എല്ലാവരും അതിനോടു കൂടുതൽ സഹകരിക്കും നല്ല പാട്ടുകളെയാണ് എല്ലാവരും എല്ലായ്പ്പോഴുമിഷ്ടപ്പെടുന്നത് അതു താളവും മേളവും എല്ലാം കൂടാകുമ്പം എല്ലാവർക്കുമത് ഇഷ്ടമായിരിക്കും എല്ലാവരുമതിനോട് സ് കൂടുതൽ ഏറ്റവും കൂടുതലായിട്ടിഷ്ടപ്പെടുന്ന അടിച്ചു പൊളിപ്പാട്ടുകൾ തന്നെയാണ് അല്ലാതെ മറ്റേ പാട്ടുകളാകുമ്പം അതിന് വാ വാക്കുകളൊക്കെ നമുക്ക് കിട്ടാനായിട്ടിച്ചര ബുദ്ധിമുട്ടാണ് നല്ല അർത്ഥമായിട്ടുള്ള പാട്ടുകളും വാക്കുകളുമൊക്കെ കേട്ടു കഴിയുമ്പം അതു കിട്ടാനായിട്ടിച്ചര ബുദ്ധിമുട്ടു വരും അതു കൊണ്ട് എപ്പോഴും നല്ലത് അടിച്ചു പൊളി പാട്ട് തന്നെയാണ് ഞാനതിനു തന്നെയാണ് കൂടുതൽ പിന്താങ്ങുന്നത് അടിച്ചു പൊളി പാട്ടിനെയാണ് മറ്റേ പാട്ടിനേക്കാട്ടിലും കൂടുതൽ പിൻതാങ്ങുന്നത് അടിച്ചു പൊളി പാട്ടിനോടാണ് എപ്പോഴും കേൾക്കാനിഷ്ടപ്പെടുന്നതുമത് തന്നെയാണ് മറ്റു മറ്റേ പാട്ടുമൊക്കെ നല്ല പാട്ടൊക്കെത്തന്നെയാണ് പള്ളികളാണേപ്പോലും ഇപ്പോൾ എന്തെങ്കിലും പരിപാടി വെച്ചാൽ അടിച്ചു പൊളി പാട്ടു മാത്രം കെ ആണ് വെക്കുന്നത് അങ്ങനെ അടിച്ചു പൊളി പാട്ടിനോടാണെനിക്കേറ്റവും കൂടുതലിഷ്ടം